ഇപ്പൊഴത്തെ നമ്മുടെ സമൂഹത്തിൽ വന്യജീവികൾ വലിയൊരു വിപത്തായി കൊണ്ടിരിക്കുകയാണ് ഈ കുറച്ച് മാസങ്ങള് മാസങ്ങളായി ഇതുങ്ങൾ കാട് വിട്ട് വെളിയിലേക്ക് വരികയും പിന്നെ കുറേയധികം മനുഷ്യ ജീവൻ തന്നെ എടുക്കുന്നുണ്ട് അതായത് ഒരു മാസം ആനയെ ആനയെ കൊണ്ടുള്ള ശല്യമാണെങ്കിൽ പിറ്റത്തെ മാസം കടുവേനെക്കൊണ്ടുള്ള ശല്യമാണ് നമ്മുടെ കേരളത്തിലിപ്പോൾ നടക്കുന്നത് അതായത് ഈ കാട്ടിലുള്ള ഈ മരങ്ങളും അതായത് ഈ കുറെ തേക്കും കാര്യങ്ങളും നട്ട് പിടിപ്പിക്കാണ്ട് കുറച്ച് ഈ ഈ പ്ലാവ് പോലത്തെ കുറെ മരങ്ങൾ ഒക്കെ നട്ട് പിടിപ്പിക്കുവാണെങ്കിൽ തന്നെ ഈ ആനക്കൊക്കെ ഉള്ള ഫുഡ് കാട്ടിൽ തന്നെ ഉണ്ടാകും അതിന് പകരം അതൊക്കെ വെട്ടി മാറ്റി തേക്ക് അതുപോലത്തെ ഉള്ള ഈ മരങ്ങളെക്കെയാണ് ഇവിടുത്തെ സർക്കാരുകൾ കാട്ടില് വെക്കുന്നതും വളർത്തുന്നതും ഒക്കെ പിന്നെ കടുവേൻ്റെ ഇതെന്ന് പറയുമ്പം കടുവ നാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇതിനെ പിടിക്കും ഇതിനെ പിടിച്ച് വേറൊരു ജനവാസ മേഖലേൻ്റെ അടുത്തൊക്കെ തന്നെയാണ് ആയിട്ടാണ് കൊണ്ടുപോയി വിടുന്നതെന്നാണ് ജനങ്ങളും പിന്നെ കുറേയധികം ആളുകളും പറയുന്നത് അതിന് പകരം ഇതിനെ പിടിക്കുകയും പിന്നിതിനെ വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇതിനാവശ്യമുള്ള കാര്യങ്ങള് ഇതിൻ്റെ ഹെൽത്ത് കാര്യങ്ങളെല്ലാം നോക്കി ആക്കുകയാണ് ചെയ്യേണ്ടത്